ആ ഹലോ അതെ അതെ

ആ എവിടെ അത് ഏതു ഭാഗത്തായിട്ടാണ് നോക്കുന്നത് ആ ഏ സി റോഡ് ഏ സി റോഡ് തന്നെയാണോ നോക്കുന്നത് അതായത് ചങ്ങനാശ്ശേരി മങ്കൊമ്പ് ആ ഭാഗമാണോ ആ അങ്ങനെ നെടുമുടി സൈഡില് കുറച്ച് വീടുകള് കിടപ്പുണ്ടായിരുന്നു അതെങ്ങനെയാണ് വീട് നോക്കുന്നത് എങ്ങനത്തെ രീതിയിലുള്ളതാണ് നിങ്ങളുടെ ബഡ്ജറ്റോ അങ്ങനെയുള്ള മ്മ് ആ ഹാ ആ നമുക്കവിടെ മൂന്ന് ബെഡ്റൂമും ഹോളും രണ്ടു മുറി അറ്റാച്ച്ഡ് ഒക്കെ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ അന്പത് ഫുള്ളി ഫര്ണിഷ്ട് അല്ല അത് അത്യാവശ്യം കബോര്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലാണ്ട് ഒത്തിരി ഇതുള്ളതല്ല ഇതൊരു നാല്പ്പത്തിയഞ്ചന്പതാണ് അവര് പറയുന്നത് നമുക്ക് പോയൊന്നു സംസാരിച്ചു നോക്കിയിട്ട് നമുക്ക് അത് ഏകദേശം നമുക്ക് നിങ്ങൾക്കും കൂടി പറ്റുന്നതാണോന്ന് നോക്കിയിട്ട് അവിടെ വെള്ളം കയാറുന്നതൊന്നും അല്ല അത്യാവശ്യം ബോട്ട് ആക്സസ് ഉണ്ട് റോഡും ആക്സസുള്ള സ്ഥലം തന്നെയാണ് നെടുമുടി ഭാഗമാണ് ചമ്പക്കുളം വരെ പോകത്തില്ല ഇത് ഏ സി റോഡില് തന്നെ റോഡ് സൈഡ് തന്നെയാണ് എന് എച്ച് സൈഡ് തന്നെയാണ് നെടുമുടി ബോട്ട് ജെട്ടി അറിയാവോ ആ അതിനടുത്തായിട്ടു തന്നെ വരും ആ പാലം ആ നെടുമുടി പാലം ഇറങ്ങി ഉള്ള സ്ഥലത്തു തന്നെയാണ് ഇത് ചുറ്റുമതിലുണ്ട് ഒരു സൈഡില് ആറാണ് മറ്റേ ഒരു നൂറ് മീറ്റര് നടന്നു കഴിഞ്ഞാല് റോഡിലേക്ക് കയറാവുന്ന അത്രയും ദൂരമേ ഉള്ളൂ

നാല്പത്തിയഞ്ചന്പതാണ് പറയുന്നത് നാ നമുക്കൊരു നാല്പത്തിരണ്ടിലൊക്കെ കിട്ടാന് സാധ്യതയുണ്ട് ഇത് ലോണ് നോക്കാനാണോ അതോ ആ അങ്ങനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാന് പറ്റുമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് പോലെ നാല്പത്തിരണ്ടിനൊക്കെ അവര് സമ്മതിച്ചേക്കും അവര് അത്യവശ്യത്തിനു കൊടുക്കാന് വേണ്ടി തന്നെ നിൽക്കുവാണ്

അത്യാവശ്യമുണ്ട് ഒരു ആയിരത്തി ഒരുനൂറ് സ്ക്വയര് ഫീറ്റ് ആയിരത്തി ഇരുന്നൂറു സ്ക്വയര് ഫീറ്റിന് മുകളിലുണ്ടാകും മ്മ് അത് നമുക്ക് നെടുമുടി എത്തുമ്പോൾ ഒന്ന് വിളിക്ക് നമുക്ക് നാളത്തേക്ക് ഞാന് അവരെ ഒന്ന് വിളിച്ചിട്ടെ അവരവിടെ ഉണ്ടാകും അവിടെ തന്നെ വീട്ടില് തന്നെ ഉള്ളതാണ് നമുക്ക് പോയാൽ സ്ഥലമൊന്നു കാണാം സ്ഥലവും വീടുമൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ പറ്റുന്ന ഇത് തന്നെയാണെന്നുണ്ടെങ്കില് നമുക്കത് എത്രയും പെട്ടെന്നത് ഡീല് ആക്കാം അത് നാളെ എപ്പഴത്തേക്ക് വരാൻ പറ്റും ഞാൻ അവരുടെ അടുക്കലത് പറയാം വീട്ടില് വേറെയാരെയെങ്കിലും കൂടെ കാണിക്കാനുണ്ടെങ്കില് അവരേയും കൂടെയൊന്നു വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാല് വേറെ രണ്ടു മൂന്നെണ്ണം കൂടെയുണ്ട് ആ ഏരിയായില് തന്നെ ഉണ്ട് നമുക്ക് നാളെ വര ആ നാളെ വരുമ്പോൾ നമുക്ക് അതും കൂടിയൊക്കെ വേണമെങ്കിൽ ഈയൊരു നാല്പ്പതു നാല്പ്പത്തഞ്ചിനു പറ്റുന്ന ഒരു ആറു സെന്റൊക്കെ സ്ഥലമുള്ളതൊക്കെയുണ്ട് നിങ്ങള് വീട് വീടും വീടും സ്ഥലവും കൂടെ തന്നെയല്ലേ നോക്കുന്നുള്ളൂ വീട് സ്ഥലം മാത്രം അല്ല ആ ഹാ അങ്ങനാണെന്നുണ്ടെങ്കില് നാളെ ആ നാളത്തേക്കൊന്ന് എപ്പം വരാനും പറ്റുമെന്ന് ഉള്ളത് പറയുക ഞാന് അവരെ ഒന്ന് ആ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി ഞാൻ അപ്പം അവരുടെ അടുക്കലത് പറഞ്ഞിട്ട് നാളെ നമുക്ക് അതിന്റെ കൂട്ടത്തില് വേറേയും കൂടെ കാണാം ഒരു അന്പതില് അകത്തു നിൽക്കുന്ന കുറച്ചു വീടുകളും കൂടെ നമുക്ക് നാളെ ആ ഓക്കെ ഓക്കെ ശെരി ശരി ശരി പേര് എന്തായിരുന്നു സച്ചിന് ആ ഓക്കെ സച്ചിൻ അപ്പം വിളിച്ചാൽ മതി വിളിച്ചാൽ മതി